വികസനത്തിൻ്റെയും വളർച്ചയുടെയും കാര്യത്തിൽ തൃശ്ശൂർ ജില്ല നേരിടുന്ന പ്രധാന വെല്ലുവിളികളും അവസരങ്ങളും അട്ട് ഒട്ടനവധിയാണ് പ്രത്യേകിച്ച് പരിസ്ഥിതിയുടെ കാര്യമാകട്ടെ ട്രാഫിക്കിൻ്റെ കാര്യമാകട്ടെ കാലാവസ്ഥയുടെ കാലമാ കാലാവസ്ഥ നമുക്ക് പിന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ലല്ലൊ അതുകൊണ്ട് പരിസ്ഥിതിയുടെ കാര്യം സാംമ്പത്തിക ശാസ്ത്രം സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഞങ്ങ നമ്മുടെ തൃശ്ശൂരിൽ പ്രശ്നങ്ങളായി തോന്നാറുണ്ട് പരിസ്ഥിതിയുടെ കാര്യം പറയുകയാണെങ്കിൽ മാർഷ് മാസം അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മെയ് മാസങ്ങളൊക്കെ വേനൽക്കാലമാണ് ആ സമയങ്ങളിലൊക്കെ ഇവിടെ ചുട്ട് പൊള്ളുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഇവിടെ എല്ലൊ അലേർട്ടൊക്കെയാണ് വരാറ് കാരണം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നു അവിടെ വേറെ ബിൽഡിങ്സ് പണിയുന്നു അല്ലാതെ വേറെ മരങ്ങളോ അല്ലെങ്കിൽ വേറെ ഹരിതാപമോ പച്ചപ്പോ ഒന്നും ഇവിടെ പുതിയതായി നടുന്നില്ല വളർത്തുന്നില്ല എല്ലാം ഭയങ്കര വേനൽ വേനലിൻ്റെ ടയ് സമയത്ത് വളരെയധികം കഷ്ടപ്പാടിലൂടെയാണ് വളരെയധികം ചൂടിലൂടെയാണ് നമ്മൾ തൃശ്ശൂർ നിവാസികൾ കടന്ന് പോകുന്നത് തൃശ്ശൂർ നിവാസികളുടെ വളരെ അധികം കഷ്ടപ്പെടുത്തുന്ന വേറൊരു പ്രശ്നമെന്ന് പറയുന്നതാണ് ട്രാഫിക് പ്രശ്നങ്ങൾ ട്രാഫിക്കിൻ്റെ മാനേജ്മെൻറ്റ് വളരെയധികം മോശമാണ് ഇവിടെ ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി തട്ടിയേക്കാം അത്രയധികം വണ്ടികൾ തൃശ്ശൂരിൽ ഉണ്ട് അതേ പോലെ തൃശ്ശൂർ ടൗണിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ചും കണ്ടുമാണ് റോഡ് ക്രോസ് ചെയ്യുക തന്നെ വേണ്ടി വരുന്നത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ സീബ്ര ക്രോസ് പോലും ഉണ്ടാകാറില്ല വളരെ പ്രധാനമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അത്രയും നാഷണൽ ഹൈവെ പോലെയുള്ള അതേപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കൊറച്ചും കൂടിയും പരിണാമം ഉണ്ടായിട്ടുള്ളത് അല്ലാതെ നമ്മൾക്ക് വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ പരിണാമം അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഡെവലപ്മെൻറ്റൊന്നും നമ്മുടെ തൃശ്ശൂരിൽ കാണാറില്ല തിരുവനന്തപുരം എന്ന പട്ടണത്തെയൊ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അ തൃശ്ശൂരിലേക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം വളരെ മോശമായ രീതിയിലാണ് പിന്നെ നമുക്ക് തൃശ്ശൂരിനെ കാണാൻ സാധിക്കുക കാരണം തിരുവനന്തപുരം അല്ലെങ്കിൽ എർണാകുളം എന്ന പട്ടണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവ് അവിടെയുള്ള ജില്ലകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെയും അവിടെയൊക്കെ കുറച്ചും കൂടിയും സുഖപ്രദമായി ജീവിക്കാൻ സാധിക്കും അല്ലെങ്കിൽ തൃശ്ശൂർ ഭയങ്കര ചൂടാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്ന് പോകുന്നൊരാറുണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ജില്ലയെ മികച്ചതാക്കാനുള്ള എൻ്റെ ശുപാർശയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും കുറച്ചും കൂടിയും ഡെവലപ്മെൻസ് നമ്മുടെ തൃശ്ശൂരിൽ വരുത്താനുണ്ട് കുറച്ചും കൂടിയും പോലീസ് പോലീസ് ട്രാഫിക് പോലീസ് നമ്മളുടെ തൃശ്ശൂർ റോഡുകളിൽ അല്ലെങ്കിൽ ജംഗ്ഷനിൽ നിൽക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നെ പറയട്ടെ നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഭവനങ്ങൾ പണിയണം അല്ലാതെ പരിസ്ഥിതിയെ നശിപ്പിച്ചിട്ടാകരുത് നമ്മൾ ബ് പണിയുന്നത് പിന്നെയെന്ന് പറഞ്ഞത് നമ്മളുടെ ഇൻഫ്രാസ്ട്രാക്ചർ നമ്മൾ കുറച്ചും കൂടി നന്നാക്കണം ബസ്സിനുള്ള ബസ് റൂട്ടുകൾ കൂട്ടണം പിന്നേ കാരണം ഇപ്പോഴും പല സ്ഥലത്ത് മണിക്കൂറിൽ മാത്രം അല്ലെങ്കിൽ ഓരോ മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മാത്രമെ നമുക്ക് ബസ്സൊക്കെ കയറാൻ പറ്റുകയുള്ളു അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ബസ് വെയിറ്റിംഗ് ഷെഡ്ഡുകൾ വെയ്ക്കണം അതുപോലെതന്നെ നമ്മൾ ഒട്ടനവധി അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ ജില്ലയിൽ മികച്ചതാക്കാനുണ്ട് ഇവിടെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളെന്നു പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ തൃശ്ശൂരിനെ എനിക്കധികം വലിയ കുറ്റം പറയാനില്ല പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ പരിസ്ഥിതി ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ ദാരിദ്ര്യ രേഖ ശരിയാണ് ഇതിനേക്കാൾ വലിയ വലുതായി മോശമായ സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളുടെ തൃശ്ശൂർ ഇനിയും നന്നാക്കാനിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ഇനിയും നന്നാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ കലയുടെ തലസ്ഥാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതു മാത്രമെ നമ്മളുടെ കയ്യിലുള്ളു പൂരങ്ങളുടെ നാട് എന്ന് പറഞ്ഞതു കൊണ്ട് മാത്രം കാര്യമില്ല കാരണം അതു മാത്രം നമ്മളുടെ കയ്യിലുള്ളു പക്ഷെ അതല്ലാതെ നമ്മളിനിയും കുറച്ചും കൂടിയും നന്നായി അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും പരിസ്ഥിതിയുടെ കാര്യമാണെങ്കിലും നമ്മൾ പഴമയെ മറക്കാതെ പുതുമയിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മളുടെ തൃശ്ശൂരിനെ വളർത്തിക്കൊണ്ടു പോകണം